മലയാള ഭാഷ ഹിന്ദിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മലയാള ഭാഷ മലയാളികൾക്ക് പെട്ടെന്ന് പഠിക്കാനും അതായത് മലയാളികളുടെ മക്കളായാലും പെട്ടെന്ന് പഠിക്കാനും വായിച്ച് വായിക്കാനും എഴുതാനുമൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അത് മറ്റു ജില്ലക്കാർ സംസ്ഥാനക്കാരത് ഹിന്ദിക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മലയാളം പഠിക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നേരെ തിരിച്ച് മലയാളികൾക്ക് ഹിന്ദി പെട്ടെന്നു പഠിക്കാൻ പറ്റും അതാണതിൻ്റെ വ്യത്യാസം മലയാളം കേരളീയർക്ക് എളുപ്പമാണ് പക്ഷെ മറ്റു സംസ്ഥാനക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മലയാളത്തെക്കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത് ഹിന്ദി മലയാളികൾ എവിടെപ്പോയാലും ഏതു ഭാഷയും പെട്ടെന്ന് പഠിക്കും ഹിന്ദിക്കാർ മലയാളം സംസാരിക്കണമെങ്കിൽ ഏകദേശമൊരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും എടുക്കേണ്ടിവരും തുടർച്ചയായി കേരളത്തിൽ ജോലി ചെയ്താൽ മാത്രമേ മലയാളം കുറച്ചെങ്കിലും പഠിക്കാൻ പറ്റുകയുള്ളു പക്ഷേ മലയാളി ഒരു ഹിന്ദി സംസ്ഥാനത്ത് പോയി ഏകദേശം ഒരു മാസം ഒന്നര മാസം രണ്ടു മാസത്തിനുള്ളിൽ ഏകദേശം ഹിന്ദി സംസാരിക്കാൻ തുടങ്ങും അതാണ് അതിൻ്റെ മാറ്റം